ഹലോ എൻ്റെ പേര് എവ്ലിൻ എന്നാണ് ഞാൻ അടുത്തിടെ പി എം കെ വി വൈ രജിസ്റ്റർ ചെയ്തായിരുന്നു അതിൻ്റെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയും ചെയ്തു എങ്കിലും എനിക്ക് ഒരു വിധത്തിലുമുള്ള പ്രതികരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല എനിക്ക് എൻ്റെ പി എം കെ വി വൈയുടെ അപേക്ഷയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മൂല്യനിർണയത്തിൻ്റെ ഫലം അറിയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മൂല്യനിർണ്ണയ ഐ ഡി പി എം കെ വൈ വി ഒന്ന് ആറ് നാല് എട്ട് പത്ത് എന്നാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാന നാലക്കങ്ങൾ മൂന്നേ പൂജ്യം രണ്ടേ ഒൻപതേ ആണ് എൻ്റെ ഈ ഇത് വച്ചിട്ട് എൻ്റെ ഈ ഇൻഫൊർമേഷൻസ് വച്ചിട്ട് എനിക്ക് എൻ്റെ മൂല്യനിർണയത്തിൻ്റെ ഫലം സ്റ്റാറ്റസ് അറിയണം എന്നുണ്ട് അത് എനിക്ക് അറിയാനുള്ള എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു